പണ്ടെടുത്ത ഫോട്ടോകൾ കാണുമ്പോൾ നമ്മൾക്ക് ഒരു നൊസ്റ്റാൾജിയ വരും ഈ പണ്ടത്തെ ഫോട്ടോകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ ഒരു ആൽബത്തിന് ബുക്കൊക്കെ ഇണ്ടേനി അതൊക്കെ നമ്മൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ഇപ്പോൾ സാധരണ എവിടേയും കാണില്ല അതൊന്നും ഒക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നോരൊക്കെ വളരെ കുറവാണ് പണ്ടത്തെ ഫോട്ടോസൊക്കെ ക്ളാരിറ്റി കുറവായിരുന്നെങ്കിലും എല്ലാവരും സൂക്ഷിച്ച് കൊണ്ടു നടക്കേന് പിന്നെ ഇപ്പോഴത്തെ ഫോട്ടോസൊക്കെ എല്ലാവരും ഫോണിലൊക്കെയാണ് എടുക്കൽ അതൊക്കെ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ അപ്പം ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നാൽ അപ്പോൾ തന്നെ നമ്മൾ കുറെ എണ്ണം ഡിലീറ്റ് ആക്കി പോകും അപ്പം നമ്മൾക്ക് അങ്ങനെ പഴയ ഓർമകളൊന്നും അയവിറക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ ഇപ്പം എല്ലാവരും കാര്യമായിട്ട് ഫോട്ടൊ എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാനും അത് പോലെ കളിയാക്കാനുമൊക്കെയാണ് കാര്യമായിട്ടെടുക്കൽ ഈ ഫോട്ടോസൊക്കെ നല്ല ഫോട്ടോസ് ഒന്നും ആരും എടുക്കില്ല കുറേ ഓഞ്ഞ ഫോട്ടോസ് ഒക്കെയാണ് കായത്തിലെല്ലാറും എടുക്കൽ ആ ഫോട്ടോസ് അണെങ്കിൽ നമ്മളെ എഡിറ്റ് ചെയ്ത് കണ്ട് ഉള്ള കോലത്തിൽ നിന്ന് വേറെ കോലത്തേക്ക് ആക്കിയാണ് അത് നമ്മളെ ബർത്ത്ഡേക്ക് ഒക്കെ ഇട്ട് നാറ്റിച്ചും ആ ഫോട്ടോസൊക്കാലും നമുക്ക് കണ്ടുമ്പം അപമാനം വരും എടുത്തത് എന്തിനാണെന്നു വരെ തോന്നും ആ ഫോട്ടക്ക് മ്മക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല